ആ നമസ്കാരം ദുർഗ്ഗ പെയിൻ്റിംഗ് ഏജൻറ്റല്ലേ ആ മാഡം ഞാൻ ഇങ്ങനെ ഒരു ഫ്രണ്ട് വഴിയാണ് കോൺടാക്ട് കിട്ടിയത് എൻ്റെ വീട് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടീട്ട് ആയിരുന്നു

ആ ആ മാഡം ഞങ്ങളുടെ വീടൊരു അഞ്ച് വർഷം ആയിട്ട് പെയിൻറ്റൊന്നും ചെയ്തിട്ടില്ല അഞ്ച് വർഷം മുന്നേ ആണ് എല്ലാ പണിയും ചെയ്തത് അപ്പോൾ അതിന് ശേഷം അത്യാവശ്യം നല്ല കുറച്ച് മഴയും കാര്യങ്ങളൊക്കെ കൊണ്ട് ഭയങ്കര വൃത്തികേടായി കിടക്കാണ്

ആ ചെയ്യണം ഫുൾ ചെയ്യണം കാരണം എന്താന്ന് വെച്ചാൽ എനിക്കൊരു വെല്യൊരു ഫംഗ്ഷൻ വരാണ് വീട്ടിൽ അപ്പോൾ എല്ലാ പ്രോഗ്രാമും നടക്കണത് വീട്ടിൽ വെച്ചിട്ടാണ് അത് എത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നോ അത്രയും നന്നായിട്ട് നല്ലൊരു ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ ചെയ്ത് തന്നാൽ വളരെ ഉപകാരം ആയിരിക്കും അല്ല ഞാൻ പറഞ്ഞില്ലേ എല്ലാം ചെയ്യണം കാരണം ഫ്രണ്ട് മുതൽ എല്ലാ എല്ലാതും ആ കറക്റ്റ് ഫിനിഷിംങ്ങിലെല്ലം ചെയ്ത് തരണം ആ ഞങ്ങളുടെ വീട് ഒരു തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് ആ ആണ് രണ്ട് നില വരുന്നുണ്ട് തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ രണ്ട് നീല വീടാണ് വരുന്നത് അതെ അതെ ആ ആ ആ എന്തായാലും നിങ്ങൾ വീടൊക്കെ ഒന്ന് വന്ന് കണ്ടിട്ട് നിങ്ങൾ ബഡ്ജറ്റൊക്കെ നോക്കി പറഞ്ഞാൽ മതി ആ തീർത്തും ഞങ്ങൾക്ക് ഉള്ളിൽ കുറച്ച് ന്യൂ കളേഴ്സാണ് ഞങ്ങൾ പ്രിഫറ് ചെയ്യുന്നത്

ആ ഈ ഈ വാട്ട്സ്ആപ്പിലെന്നെ എല്ലാ ഡീറ്റെയിൽസും അയച്ചിട്ടാൽ മതി ലൊക്കേഷൻ എന്ന് പറയുന്നത് തൃശ്ശൂർ രാമവർമ്മപുരം എഞ്ചിനീയറിംഗ് കോളേജുണ്ട് ഗവൺമെൻറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഓപ്പോസിറ്റ് വരും ആ ആ അതെ അതെ ആ ഞങ്ങൾക്ക് ഒരു അടുത്ത ഒരു വീക്കിനുള്ളിൽ എല്ലാ പണികളും ചെയ്ത് തീർക്കാൻ പറ്റോ ആ ഓക്കെ താങ്ക് യൂ